പുസ്തകം വായിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് പുസ്തകങ്ങൾ കുഞ്ഞിനാളിൽ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടവായിരുന്നു അന്ന് നമ്മൾ ബാലരമയും കുട്ടികളുടെ ദീപികയും പിന്നെ അതുപോലുള്ള ചെറിയ ചെറിയ മാസികകൾ ഇരുന്ന് അമർചിത്ര കഥകളുവൊക്കെ വായിക്കുവായിരുന്നു പിന്നീട് അങ്ങനെ വായിച്ചു കിട്ടുന്ന അറിവുകൾ ലഭ്യമായപ്പോൾ മുതിർന്നവരുടെ പുസ്തകങ്ങൾ തകഴീടെ ചെമ്മീൻ അല്ലെ മാധവികുട്ടിയമ്മയുടെ പുസ്തകങ്ങൾ അങ്ങനെ ഉള്ള ചെല പുസ്തകങ്ങള് ഓ എൻ വി ക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് വായിക്കും അപ്പം ഈ വായിക്കുന്നത് താല്പര്യമായപ്പോൾ വായനയിലൂടെ ഒരുപാടറിവുകളും ഒരുപാട് നല്ല വ്യക്തിത്തങ്ങളെയും ഒത്തിരി മാതൃകാ വ്യക്തിത്തങ്ങളെയും ഒക്കെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒത്തിരി ഗുണകരമാണ്